ഞാൻ പാടുമ്പോഴത്തെന് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര വിറയലായിരുന്നു ചെറുതിൽ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന് പ കൂടെ പാടി കഴിയുമ്പം ഗ്രൂപ്പ് സോങ്ങിനൊക്കെ പാടുവാണെങ്കിൽ ഭയങ്കര മൂ കുഴപ്പമില്ല എങ്കിലും സിംഗിളായിട്ടാകുമ്പോൾ ഒത്തിരി വെറവല്ലൊക്കെ അനുഭവപ്പെടാറുണ്ട് പിന്നെ ട്യൂൺ ഒക്കുകയും ഇല്ല എന്നൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ പിന്നെ പാടി പാടി പാടി ഗ്രൂപ്പ് സോങ്ങിലൊക്കെ ആണേലും പാടാറുണ്ട് പള്ളിയിൽ കൊയറിലൊക്കെ പാടി കുറച്ച് ഇത് മാറി കിട്ടിയിട്ടുണ്ട് എങ്കിലും ബുദ്ധിമുട്ടാണ് പിന്നെ സ്കൂളിലൊക്കെ മത്സരത്തിനൊക്കെ പങ്കെടുക്കാറുണ്ട് പിന്നെ മറ്റു കുട്ടികള് നന്നായിട്ട് പാടുമ്പഴ്ത്തേക്ക് എനിക്ക് ബുദ്ധിമുട്ടാണ് എൻ്റെ പാട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് പ പക്ഷെ പാടി കഴിയുമ്പോൾ നമുക്ക് കൂട്ടുകാരികള് പറയാറുണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്ന് പിന്നെ വീട്ടിൽ ഇരിക്കുമ്പഴ് തന്നെ പാടിക്കൊണ്ടിരിക്കും അപ്പോൾ കുറച്ചായത് പാ ട്യൂൺ ഒക്കെ എടുത്ത് പാടുമ്പഴ്തേന്നും ഇപ്പം പാടി പാടി ക്ലിയറ് ഇതാക്കാറുണ്ട് പിന്നെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് പിന്നെ വാശി ഓരോ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ കൂട്ടുകാരികൾ ഒക്കെയായിട്ട് ഈരടികൾ അവതരിപ്പിക്കുക അപ്പം അങ്ങനെ പാട്ടിനോട് കുറച്ച് താല്പര്യം തോന്നും അങ്ങനെ പാട്ട് ഇഷ്ടമാണ് പാട്ട് കേൾക്കാനും നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് പിന്നെ ടീവിയിലൊക്കെ ആണേലും സിംഗർമാരുടെ ഇത് കാണുമ്പഴത്തേന്നും അത് നമ്മള് കേട്ട് അവരോടൊപ്പം നമ്മള് പാടും അപ്പം അത് നമുക്കൊരു ട്യൂൺ ഒരു പ്രജോദനം ആകുന്നുണ്ട് പിന്നെ സദസ്സില് പാ സിംഗിളായിട്ട് പാടുമ്പം ആണ് കൂടുതല് ബുദ്ധിമുട്ട് വരുന്നത് പിന്നെ സഭാകമ്പം ചെറുതായിട്ട് ചെറുതായിട്ടല്ല കുറച്ച് ഉണ്ട് പക്ഷെ അത് മാറ്റാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് ഗ്രൂപ്പ് സോങ് ആകുമ്പോഴത്തെന് നമുക്ക് സ്റ്റേജിൽ കയറുമ്പം ആ ഒരു സഭാകമ്പം കുറച്ച് മാറുന്ന മാറുന്നുണ്ട് ഇപ്പം വലിയ കുഴപ്പമില്ലാതെ പോവുന്നു എങ്കിലും പാട്ട് കേൾക്കുന്നതും പാടുന്നതും ഒക്കെ ഇഷ്ടം തന്നെയാണ് പിന്നെ കുട്ടുകാരികൾ ഒക്കെ ആയിട്ട് മത്സരങ്ങള് വയ്ക്കുമ്പഴത്തേനും അവരില് മികച്ച് നിൽക്കണം എന്നുള്ളൊരു വരുമ്പം നമുക്ക് സഭാകമ്പം പാടില്ലല്ലോ അപ്പോൾ ആ ഒരു ഇത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മള് പടുമ്പഴത്തേനും നമുക്ക് ആ സഭാകമ്പം മാറാറുണ്ട് മൊത്തത്തിൽ പ ഗ്രൂപ്പ് ആയിട്ട് പടുമ്പഴത്തേനും അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ട് മാറുന്നുണ്ട് പിന്നെ മറ്റുള്ള കുട്ടികളെക്കാൽ മുന്നേറണമെന്നുള്ള ആ വാശി ആകുമ്പഴത്തേനും നമുക്ക് പാടാനായിട്ട് പ്രചോദനം നൽകുന്നുണ്ട് പിന്നെ പാടി പാടി വരുമ്പഴത്തേനും നമുക്ക് ഒരു പാട്ട് ത നന്നായിട്ട് പാടി തെളിയിക്കണമെന്നുള്ള ഇത് വരുവല്ലോ പിന്നെ മറ്റുള്ള കുട്ടികളെക്കാളും വാശിയും പിന്നെ ഫസ്റ്റ് കിട്ടണമെന്നുള്ള ഒരു വാശിയും കൂടെ കാണും അപ്പം അതനുസരിച്ച് ഇപ്പം സഭാകമ്പം കുറച്ച് മാറി വരുന്നുണ്ട് എങ്കിലും മാറിയും മുഴുവനായിട്ട് മാറില്ലെന്ന് പറയാം മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് കാരണം ഞാൻ സ്റ്റേജുകളിലൊക്കെ കയറി പ്രോഗ്രാമിനൊക്കെ അവതരിപ്പിക്കാറുണ്ട് പ്ര സമ്മാനങ്ങള് കിട്ടുന്നുണ്ട് സമ്മാനങ്ങള് കിട്ടുമ്പഴത്തേനും ആ വിറയൽ ഒക്കെ ഒരു നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് അത് മാറ്റണമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ കുറെ ഒക്കെ ഇപ്പം നമ്മുടെ സഭാകമ്പം മാറ്റി എടുക്കുന്നുണ്ട് പ നന്നായിട്ട് പാടനായിട്ട് പാടിത്തെളിയുന്നുണ്ട് അതിനായിട്ട് ശ്രമിക്കുന്നും ഉണ്ട്